ഇന്ത്യയിലെ ആളുകൾ സന്ദർശിക്കുന്ന പ്രധാനപ്പെട്ട മതകേന്ദ്രം എന്നൊക്കെ പറയുവാണെങ്കിൽ തന്നെ ഇപ്പോൾ ഓരോ മതക്കാരും ഓരോ അവരുടെ മതകേന്ദ്രത്തിലായിരിക്കും പോവുന്നുണ്ടാവുക കൂടുതലും ഹിന്ദു മുസ്ലിംസ് ക്രിസ്ത്യൻസ് അതേപോലെ ഉള്ള മതങ്ങളിലേക്കും പോവുന്നുണ്ടാവുക ഇപ്പം എൻ്റെ നാട് സംബന്ധിച്ച് പറയുവാണെങ്കിൽ തന്നെ ഇവിടെ ഹിന്ദുക്കൾ ഇവിടെ നമുക്ക് വലിയൊരു പ്രശസ്ത അമ്പലം ഒക്കെയുണ്ട് പുൽപ്പള്ളിയിൽ ഒരു അമ്പലമുണ്ട് സീത ദേവി ടെംപിൾ എന്നാണ് പേര് അവിടെ ഹിന്ദുക്കളാണ് കൂടുതലും പോവാറ് പിന്നെ മുസ്ലിംസിന് ഇവിടെ വേറെ പള്ളിയുണ്ട് ടൗണിലായിട്ട് ക്രിസ്ത്യൻ്റെ ചർച്ച് ഉണ്ട് ടൗൺ ചർച്ച് എന്നാണ് ചർച്ചിൻ്റെ നെയിം അങ്ങനെ കുറേ നമ്മുടെ മതം മതകേന്ദ്രങ്ങൾ ഇവിടെ ഉള്ളതാണ് പിന്നെ ആഘോഷങ്ങൾ എന്നൊക്കെ പറയുവാണെങ്കിൽ തന്നെ ഇപ്പം മുസ്ലിംസിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുവാണെങ്കിൽ തന്നെ മുസ്ലിംസിൻ്റെ കുറേ നോമ്പ് കാലത്തൊക്കെ കുറേ പെരുന്നാളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് പിന്നെ മുഹറം അതുപോലെ കുറേ ആഘോഷങ്ങൾ ആ ആ മതം മുസ്ലിം എന്ന മതത്തിനുണ്ട് ക്രിസ്ത്യൻ്റെ വരുവാണെങ്കിൽ പെരുന്നാൾ പള്ളിപെരുന്നാൾ ഒക്കെ ഉണ്ടാവാറുണ്ട് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് പിന്നെ പുൽപ്പള്ളി അമ്പലം പുൽപ്പള്ളി അമ്പലം നമ്മുടെ പുൽപ്പള്ളിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ് അതുപോലെത്തന്നെ പുൽപ്പള്ളി അമ്പലത്തിലെ ഉത്സവം എല്ലാ വർഷവും ഒരു ഒരാഴ്ച നീണ്ട് നിൽക്കുന്ന ഉത്സവമൊക്കെ ഉണ്ടാവും ഒരു നല്ല രസമുള്ള ഇതാണ് അടിപൊളിയാണ്